പരമ്പരാഗ പരമ്പരാഗത കായിക ഇനങ്ങൾ കുറയുന്ന പ്രവണത നമ്മടെ സംസ്കാരത്തെ പൈതൃകമായിട്ട് ബാധിക്കുന്നതാണ് കുട്ടികൾ അവധി സമയത്തും മറ്റു സമയങ്ങളിലും ഒന്നിച്ചു കൂടുകയും നമ്മുടെ സംസ്കാരത്തിൻ്റേതായ കായിക ഇനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു മനോഹാരമാ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു കബടിയാണങ്കിലും കോ കോ മറ്റ് കായിക വിനോദങ്ങളും കുട്ടികളുടെ ഇടയിൽ സൗഹൃദവും പങ്കുവയ്ക്കലും കൂട്ടായ്മയും സ്നേഹവും വളർത്തുകയായിരുന്നു അതിലൂടെ അവര് അവരെ മനസ്സിലാക്കുവാനും തൻ്റെ സമൂഹത്തിലുള്ള മറ്റു കുട്ടികളെ മനസ്സിലാക്കുവാനും സാധിക്കുമായിരുന്നു ഇന്ന് അതെല്ലാം ഇലക്ട്രോണിക്സ് ഗെയിമുകൾ പിടിമുറുക്കുമ്പോൾ കുട്ടികൾ അവരുടെ ലോകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു വീട്ടിലെ ഏതെങ്കിലും മുറിയിൽ അവർ തനിച്ചായിരുന്നതു കൊണ്ട് അവറീ ഗെയിമിൽ ഏർപ്പെടുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടായിട്ടാണെങ്കിലും അവരുടെ കൂടെയുള്ള ഈ ഗെയിമിൽ പങ്കെടുക്കുന്നവരെ പോലും അവർക്ക് പരിചയമില്ലാത്തവരായിട്ട് മാറുന്നു അവര് മാത്രം വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും മറ്റുളളവരെയെല്ലാം തോൽപ്പിച്ച് എപ്പോഴും വിജയം കരസ്ഥമാക്കണമെന്നുള്ള ഒരു ചിന്തയിലേക്കും കുട്ടികൾ ഇതുമൂലം കടന്നു വരുന്നു അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പരാജയമുണ്ടാകുമ്പോൾ അവർക്കത് താങ്ങുന്നതിനും അപ്പുറമായിത്തീരുന്നു ജീവൻ കൊടുക്കുന്നതിലേക്കുവരെ അവരുടെ ചിന്തകളെ ഈ ഗെയിമുകൾ സ്വാധീനിക്കുന്നു പത്ര മാധ്യമങ്ങളിൽ പല കുട്ടികളും ഗെയ്മിന് അടിമപ്പെടുന്നതായിട്ടു കാണുകയും പിന്നീട് അതു ജീവഹാനി വരെ ഉണ്ടാക്കുകയും ചെയ്തതായിട്ട് നമ്മള് വായിക്കുന്നുണ്ട് ഒരു തോൽവിയുണ്ടാകുമ്പോൾ മറ്റു കൂട്ടുകാര് നമ്മളെ സ്വാന്തനപ്പെടുത്തുകയും പിന്നേയും അവസരങ്ങളുണ്ട് നമുക്ക് ജയിക്കാം എന്നു പറയുകയും ചെയ്യുന്ന പരമ്പരാഗത സാംസ്ക്കാരിക വേദികൾ ഇന്ന് നഷ്ടമാവുകയാണ് എല്ലാവരും അവരവരുടെ ജീവിത ശൈലിയിലൂടെ മാത്രം കടന്നുപോകുകയും അവരൊതുങ്ങുന്ന ഒരു ലോകത്ത് ഇലക്ട്രോണിക് ഗെയിംസുകൾ അവരെ പിടി മുറുക്കുകയും ചെയ്യുന്നു ഇവിടെ സ്നേഹമില്ല കരുതലില്ല കരുണയില്ല ഒന്നും തന്നെ അവർക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നില്ല പരാജയപ്പെട്ടാൽ അതവരുടെ മാത്രം ഒരു പരാജയമായിട്ടു മാറുന്നു വിജയിച്ചാൽ അതവരുടെ മാത്രം വിജയമായിട്ടു മാറുന്നു പരമ്പരാഗത കബഡി കളിയിലും കോ കോ കളിയിലും മറ്റ് ഗ്രൂപ്പ് ഇനങ്ങളിലുമെല്ലാം ഒന്നിച്ചു ചിന്തിക്കുകയും ഒരു തീരുമാനത്തിലെടു തീരുമാനത്തിലെത്തുകയും ചെയ്യുവാൻ ഇന്ന് അതിൽ നിന്നുമൊക്കെ മാറി അവരൊറ്റയ്ക്കു തീരുമാനെടുക്കുവാനും അത് മാതാപിതാക്കളെ വരെ വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുവാനും സാധ്യതയുണ്ട് അതിനെല്ലാം വളംവച്ചു കൊടുക്കുന്നത് ഇതുപോലുള്ള ഇലക്ട്രോണിക്സ് ഗെയിംസുകളും ആ ഗെയിമിൽ നിന്നും അവർ പഠിക്കുന്ന അവരുടെ സ്വന്തമായ തീരുമാനങ്ങളുമാണ് മറ്റുള്ളവര് പറയണത് കേൾക്കണമെന്നോ അതിൽ കുറച്ചെങ്കിലും സത്യമുണ്ടെന്നോ ഈ ഗെയിമുകളൊന്നും തന്നെ അവരെ പഠിപ്പിക്കുന്നില്ല മറ്റുള്ളവരെ പഠി പരിഗണിക്കണമെന്നോ അവർക്കും ചില വിജയങ്ങൾ അവകാശപ്പെട്ടതാണെന്നോ ഈ ഗെയിമുകൾ അവരെ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് പരമ്പരാഗത ഗെയിമുകളിലേക്ക് കൂടുതൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടത് മാതാപിതാക്കളുടെ ചുമതലയാണ്